ക്രിക്കറ്റും ഫുട് ബോളുമാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ കായിക വിനോദങ്ങൾ ഇതിലെ ക്രിക്കറ്റിൽ സച്ചിൻ ടെണ്ടുൽക്കറും പിന്നെ ഫുട് ബോളിൽ ഐ എം വിജയനും പ്രശസ്തരായിട്ട് ഏറ്റവും വലിയ താരങ്ങളായിട്ട് മാറിയ കായിക ക്ഷമതയുള്ള ആൾക്കാരാണ് പിന്നെ ഈ കാര്യത്തിൽ കൂടുതൽ അറിവുകൾ എനിക്ക് ഇല്ല കാരണം ഞാൻ ഇത് ശ്രദ്ധിക്കാൻ നേരം ഇല്ലാതെ പോയി ആയതിനാൽ എനിക്ക് പിള്ളേർ കാണുന്നതും അവർ പറഞ്ഞു തരുന്നതുമായ ഒരു വിവരവും പത്രത്തിൽ കൂടെ കാണുന്ന ഒരു വിവരവുമേ എനിക്ക് ആതിയായിട്ടുള്ളു ആധികാരികമായിട്ടുള്ളൂ പിന്നെ ഇത് എൻ്റെ അറിവിൽ പെട്ടിടത്തോളം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ പിന്നെ ക്രിക്കറ്റും ഫുട് ബോളും ആണ് പ്രശസ്തമെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു